പാചകം ചെയ്യാൻ തുടങ്ങിയത് ഏകദേശം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുബോഴാണ് ഞാനാദ്യമായിട്ട് പാചകം ചെയ്യാൻ തുടങ്ങാൻ കാരണം ഞാൻ ഇപ്പോൾ പാചക മേഖലയിൽ ഏറ്റവും തിളങ്ങിയിരിക്കുന്ന ലക്ഷ്മി നായരുടെ ഒരു കുക്കറി ഷോ യാദൃശ്ച ഞാൻ യാദൃശ്ചികമായി ഞാൻ ടീ വില് കാണാൻ ഇടയായി അപ്പോഴാണ് എനിക്ക് ഓൾ റെഡി കുക്കറി ഷോസ് ഇഷ്ട്ടമായിരുന്നു അപ്പോൾ ലക്ഷ്മി നായരുടെ പാചക കുറിപ്പ് കണ്ടപ്പോൾ ഇഷ്ട്ടപ്പെട്ടു അത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ലക്ഷ്മി നായർ ഒരു പച്ചടി പറഞ്ഞിരുന്നപ്പൊഴാണ് ആ പച്ചടിന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിമ്പിൾ വൺ അപ്പോൾ നമ്മൾ കക്കിരിക്ക കൊണ്ടുള്ള പച്ചടി അത് ഞാൻ വീട്ടിൽ അന്നുണ്ടാക്കുകയും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ പോരാത്തതിന് എനിക്ക് ഓൾ റെഡി ഒരു അമ്മേം തന്നെ എൻ്റെ അമ്മേം തന്നെ കുറച്ച് നന്നായിട്ട് പാചകം ചെയ്യുന്ന ഒരാളാണ് അപ്പത്തിലേക്കൊരിഷ്ടം ആദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം എനിക്ക് പാചകത്തിലേക്ക് കൂടുതൽ പ്രതിപദ്ധ്യത തോന്നിയത്